ആ ശരി ആ ശരി

ആ അറിയുന്നത് യോഗ തിരുമ്മൽനെ പറ്റി ആ തിരുമ്മൽ ഉഴിച്ചിൽ അങ്ങനെയൊക്കെയുണ്ട് പിന്നെ ആ ആയുർവേദിക് ആ ആ കുഴമ്പൊക്കെ ഇട്ട് കിഴി കുത്തുക ആ അങ്ങനെ ആ ശരീരത്തിലെ വേദന പോകാൻ ആ പിന്നെ പി സി ഓടെ ഇതിന് ആ പിന്നെ വണ്ണം കുറക്കാനൊക്കെ നമ്മൾ ആ ഇതൊക്കെ നടത്തുന്നുണ്ട് പിന്നെ ആ ഇപ്പോൾ എല്ലാവർക്കും ശരീര വേദനയൊക്കെ കുറക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഉഴിച്ചിലും പിഴിച്ചിലൊക്കെ നടത്തുന്നത്

അതിന് പറ്റീത് നമുക്ക് ഫുഡിൻ്റെ ഇത് ചെയ്യുക പിന്നെ യോഗ ചെയ്യുക പിന്നെ എക്സർസൈസ് ചെയ്യുക അങ്ങനൊക്കെയുള്ളൂ

ആയുർവേദിക്കി ആയുർവേദത്തിൻ്റെ നമുക്കത് ഇങ്ങനെ ഉഴിച്ചിലും പിഴിച്ചിലൊക്കെയുണ്ടെങ്കിൽ നമ്മളങ്ങനെ അധികം മരുന്നുകളങ്ങനെ കൊടുക്കാറില്ലല്ലോ ആ ഇല്ല തരും കിഴി കുത്ത് അങ്ങനെയൊക്കെ നമ്മളൊത്തിരി മരുന്ന് കയ്യിൽ കൊടുക്കാറില്ലല്ലോ ഇല്ല അത് പതിനഞ്ച് ദിവസം ഓരോരുത്തരുടെ ശരീരത്തിലറിഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്

ആ നോക്കി നോക്കി നമുക്ക് ആ നമുക്കതിൻ്റെ ഇതനുസരിച്ച് ഓരോ ഇത് പിന്നെ കിഴച്ചിൽൻ്റെ അതിൻ്റെ ഒക്കെ നമ്മളൊന്ന് റേറ്റ് മരുന്നിൻ്റെയൊക്കെ റേറ്റൊക്കെ നോക്കൂലോ നോക്കീട്ടാണ് നമ്മൾ റേറ്റ് തീരുമാനിക്ക ഏകദേശം പത്ത് രൂപക്ക് മേലെ പത്ത് ആ മുപ്പത് രൂപക്ക് അടുത്താകും

ഏഴ് ദിവസത്തേക്ക് ആ ആ

ഉള്ളൂ ആ അപ്പം നിങ്ങളുടെ സൗകര്യമനുസരിച്ച് വന്നാൽ അതിന് അപ്പോയിൻമെൻ്റ് എടുക്കുക എടുത്തിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ആ അപ്പോൾ പിന്നെ അങ്ങനെ അത് വന്നിട്ട് നമുക്ക് ഏഴ് ദിവസം ആദ്യം നോക്കാം നോക്കീട്ട് നമുക്കതിന് ഫലം ഉണ്ടെന്നുണ്ടേൽ കുറച്ച് ദിവസം കൂടെയൊക്കെ നോക്കാവല്ലോ അങ്ങനെയൊക്കങ്ങനെ പോകും ഫുഡ് നമുക്ക് അത് നമുക്കിവിടെ ഇങ്ങനെ ആ തെരുവോ നമ്മുടെ ഓരോരുത്തരുടെ സാഹചര്യമനുസരിച്ച് അവരിത് വെച്ചല്ലേ നമ്മൾ ഫുഡൊക്കെ കൊടുക്കാറുള്ളൂ കൊടുക്കാറുള്ളൂ ഡ്രസ്സും നമ്മൾ ചെയ്യുമോ അവിടെ വരുമ്പം നമുക്ക് വേറെ ഡ്രസ്സിലല്ലേ അവർ ചെയ്യത്തുള്ളൂ ചെയ്യത്തുള്ളൂ അതും ഇപ്പം ഇടാനുള്ള ഡ്രസ്സ് മാത്രം ആ മതി ആ കൊണ്ട് വന്നാൽ മതി പിന്നെ ഇവിടെ വരുമ്പം നമുക്കോരോ ഹാ ഓരോ ഡ്രസ്സാണ്

ചെയ്യുക ആ ചെയ്തിട്ട് പറഞ്ഞാൽ മതി ആ നിങ്ങളെത്ര ദിവസം വേണമെന്നും നമ്മളത് ചെയ്ത് നോക്കുന്നതിന്റെ അനുസരിച്ചാണ് നമ്മളെത്ര ദിവസമിത് പോവൂന്നുള്ളതറിയു ഓരോരുത്തർക്കോരോ ഇതായത് കൊണ്ടും നമുക്കതിൻ്റെ അനുസരിച്ച് ചെയ്യാൻ പറ്റത്തുളളൂ അങ്ങനെ ശരി എന്നാൽ